ഞാനാദ്യം ഒരു വിനോദത്തിന് വേണ്ടിയിട്ടാണ് റോക്ക് ക്ലൈമ്പിങ്ങ് തുടങ്ങിയത് റോക്ക് ക്ലൈമ്പിങ്ങ് തുടങ്ങിയതിനു ശേഷം എനിക്ക് മനസ്സിലായി എന്ത് വിനോദമേറിയ കായിക സ്പോട്ടാണ് അതെന്ന് അതിൽ പിന്നെ ഞാൻ വളരെ സന്തോഷിതനാണ് എപ്പോഴും റോക്ക് ക്ലൈമ്പിങ്ങ് ചെയ്യുമ്പോൾ അത് അതാണെന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു എന്നെ എപ്പോഴും റോക്കിൽ ക്ലൈമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തരുന്ന പ്രചോദനം ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷവും ഒക്കെയാണ് ഇത് ചെയ്തു കഴിയുമ്പോൾ എനിക്കെന്നെത്തന്നെ ഉള്ളൊരു മതിപ്പ് കൂടുന്നതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം